ഹലോ ഹലോ ഇത് ആ പറ ടെലിഫോൺ സർവീസ് സെൻ്ററല്ലേ അതെ ആ എനിക്കൊരു സിമ് എടുക്കാനായിരുന്നെ ആണോ എന്താ വേണ്ടത് സിം എടുക്കാൻ എന്തൊക്കെ ഡോക്യൂമെൻറ് വേണം സിമ് കണ്വേർട്ട് ചെയ്യാൻ ആണോ ഫോർ ജി അതെ പിന്നെ ആ അത് മതി ഓ എപ്പോഴാണ് വരേണ്ടത് ഓക്കെ ജിയൊ മതി റേഞ്ച് നെറ്റ് ആ കുട്ടി എത്ര കയ്യറ്റേണ്ടത് നമ്മൾ റീചാർജ് ആ ഓഫർ എന്തെങ്കിലും

ഓക്കെ ആണെങ്കിൽ

അപ്പോൾ സിമ്മ് എടുക്കാൻ അങ്ങോട്ട് വരണോ അതോ മ് ഓക്കെ മൺഡേ അപ്പോൾ വരാം ഓക്കെ

പറയൂ ആ നെറ്റ്വർക്ക് ഫീസ് ഒന്നും ഉണ്ടാവില്ലല്ലോ വൺ ജീ ബി ഓക്കെ മ് ഓക്കെ മൺഡേ വരാം പിന്നെ ഒരു ഫോട്ടോയും ആധാറും എന്ത് ആധാർ കോപ്പി

ഓക്കെ താങ്ക് യൂ